ആ മോളെ നമ്മൾക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താന്നൊ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം അക്ഷയയിൽ അതിന് അപ്ലെ ചെയ്യണം അക്ഷയിൽ അതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷൻ മേടിച്ച് കൊണ്ടു വന്നിട്ട് അതിന് നമ്മൾ ഫിൽ ചെയ്തു അപ്പം അക്ഷയയിൽ തന്നെ കൊടുത്താൽ മതി അപ്പം കൊച്ച് ജനിച്ച ഡേയ്റ്റും കാര്യങ്ങളും ഹോസ്പിറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതാനുണ്ട് എഴുതി അപ്പൻ്റെ പേര് അമ്മയുടെ പേര് വീട്ടു പേര് എല്ലാം എഴുതിയിട്ട് ആ ആ പേയ്പ്പറ് നമ്മൾ അക്ഷയയിൽ തന്നെ സമർപ്പിക്കുക അക്ഷയ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ട് അവിടെ ചെന്നിട്ട് ആ പേപ്പറ് സബ്മിറ്റ് ചെയ്യുമ്പം അവർ അതിന് വേണ്ട എല്ലാ ഇതും ചെയ്തു സർട്ടിഫിക്കറ്റ് വില്ലേജിലേയ്ക്ക് വിട്ട് ഇപ്പം എല്ലാം വില്ലേജിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിയാലോ നമ്മൾക്ക് ഇപ്പം അങ്ങനെയാണ് നടക്കുന്നത് അക്ഷയ വഴിയാണ് അത്കൊണ്ട് അക്ഷയയിൽ പോയി അപ്ലൈ ചെയ്തു കഴിയുമ്പം അക്ഷയാക്കാർ അതിന് വേണ്ട ഫോർമാലറ്റീസ് എല്ലാം പറഞ്ഞ് തരും എന്തെങ്കിലും ഹെല്പ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ അവിടെ അക്ഷയയിൽ പോവുന്നതാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ ആ സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചിട്ട് വേണ്ട ക്ലിയറൻസെല്ലാം ചെയ്തു തരാം ഹാ അതിനായിട്ട് അവിടെ ചെന്ന് അതുപോലെ ചെയ്യുക ഫോട്ടോയൊക്കെ കൊച്ചിൻ്റെ ഒരു ഫോട്ടോയും കരുതിക്കോണെ കൈയ്യിൽ പിന്നെ നിങ്ങളുടെ രണ്ട് പേരുടേയും അമ്മയുടേയും അപ്പൻ്റേയും ആധാർ കാർഡുണ്ടെങ്കിൽ അതും കൂടെ എടുത്തോണം അതും കൂടെ കൊണ്ടു പോയിട്ട് ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്താൽ മതി കറക്റ്റ് വീട്ടു പേരും പേരും കൊച്ചിന് ഇടാൻ ഇട്ട പേരുമൊക്കെ ക്ലിയർ ആയിരിക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഡി കോപ്പി അവർ എടൂത്ത് വയ്ക്കും എടുത്തു വച്ചിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പം അത് ഈസി ആയിട്ട് കിട്ടും വലിയ പ്രൊസീജ്യർ ഒന്നുമില്ല ഇന്ന ഈസി ആയിട്ട് കിട്ടാവുന്ന കാര്യം എന്തെങ്കിലും ഹെല്പ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ സഹായിക്കാം കേട്ടോ